മലയാള ഭാഷയെക്കുറിച്ച് പറയുമ്പോൾ ഒരു കേരളത്തിൽ നിന്ന് നമ്മള് ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഏറ്റവും കൂടുതല് കേരളത്തില് ഉപയോഗിക്കുന്ന ഭാഷ മലയാളം തന്നെയാണ് ഇനി വേറെ ഏത് ഭാഷ നമ്മള് സംസാരിക്കുമെന്ന് പറഞ്ഞ് കഴിഞ്ഞാലും മലയാളത്തിന് കേരളത്തിൽ കിട്ടുന്ന അത്രയും സ്വീകാര്യത വേറെ എവിടെയും കിട്ടി എന്ന് വരില്ല മലയാളികൾ എല്ലാ ഭാഷയും വേഗം പഠിക്കുന്ന ആൾക്കാരാണ് എല്ലാം എല്ലാ സംസ്കാരത്തോടും ഇണങ്ങിച്ചേരുന്ന ആൾക്കാര് തന്നെയാണ് പക്ഷെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും മറ്റ് രാജ്യത്ത് നിന്നും പലരും വന്ന് മലയാളം പഠിക്കുക എന്നുള്ള ഒരു ആശയത്തോടെ ഇവിടെ വന്ന് ജീവിക്കുന്നവരും ഇവിടെ വന്ന് ജീവിക്കാൻ വേണ്ടി മലയാളം പഠിക്കുന്നവരും ഉണ്ട് നമ്മുടെ നാട്ടിൽ പല അതിഥിത്തൊഴിലാളികളും ബംഗാളികളും തമിഴന്മാരും അതേപോലെ പല ഹിന്ദിക്കാരും തെലുങ്ക് സംസാരിക്കുന്ന ആൾക്കാരുമൊക്കെ നമ്മുടെ നാട്ടിൽ വന്ന് മലയാളം പഠിക്കുന്നവര് ഉണ്ട് അതെപോലെ ഇംഗ്ലീഷ് അതെപോലെ മദാമ്മമാരും സായിപ്പമാരും ഒക്കെ നമ്മുടെ നാട്ടിൽ വന്നിട്ട് ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റാതെ അവര് മലയാളത്തിലേക്ക് മാറുന്നവരുമുണ്ട് നമ്മുടെ ഒര് പ്രാദേശിക ഭാഷ മലയാളം എന്നുള്ള ഒരു പ്രാദേശിക ഭാഷ എല്ലാ കാലത്തും നമ്മുടെ കേരളത്തില് ഈ കൊച്ചു കേരളത്തിൽ വളരെയധികം ഒരു പ്രാധാന്യം നിലകൊള്ളുന്ന ഒന്ന് തന്നെയാണ് നമ്മുടെ നാട്ടില് എന്നല്ല പുറത്ത് ഏത് രാജ്യത്ത് പോയി കഴിഞ്ഞാലും മലയാളം എന്നുള്ളത് മലയാളികള് കൈവിട്ട് പോകുന്ന ഒന്നല്ല മലയാളം നമ്മളിപ്പോൾ ഏതൊര് പ്രാദേശിക ഭാഷയ്ക്കായാലും അത് അവർക്ക് നമുക്കൊരു നമ്മുടെ ഒര് തുറന്ന ജനാല അല്ലെങ്കിൽ നമ്മുടെ ഒരു കംഫോർട്ട് എന്ന് പറയുന്നത് നമ്മുടെ തന്നെ സ്വന്തം ഒരു ഭാഷ ഉപയോഗിക്കുമ്പഴാണ് മറ്റ് ഏത് ഭാഷ നമ്മള് പഠിച്ചു ഏത് ഭാഷ നമ്മള് സംസാരിച്ചു എന്നതിലല്ല നമുക്ക് ഏറ്റവും കൂടുതല് മാനസ്സികമായിട്ട് സന്തോഷം ഏത് ഭാഷ സംസാരിക്കുമ്പോഴാണോ ഏത് ഭാഷയിലൂടെയാണൊ നമുക്ക് ഏറ്റവും കൂടുതല് ആശയവിനിമയം നടത്താൻ പറ്റുക എന്നുള്ളതാണ് ഒരു ഭാഷ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഭാഷയും ഒലു ഒരു നാട്ടിലെ ഒരു പ്രാദേശിക ഭാഷയും മോശമായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല കാർണം എല്ലാം ഭാഷയും ഉദ്ദേശിക്കുന്നത് ഒന്ന് തന്നെയാണ് ആശയവിനിമയം എന്നുള്ളത് തന്നെയാണ് എല്ലാ ഭാഷയും ഉദ്ദേശിക്കുന്നത് ആശയവിനിമത്തിന് കഴിയാത്ത ഒന്നും നമുക്ക് ഭാഷയായിട്ടു കൂട്ടാൻ പറ്റില്ല നമ്മളിപ്പോൾ എ എ എന്തൊര് തരം കമ്മ്യൂണിക്കേഷനാണെന്നുണ്ടെങ്കിലും ഭാഷ ലാംഗ്വേജ് എന്നുള്ളത് വളരെയധികം പ്രാധാന്യം നിറഞ്ഞ ഒന്ന് തന്നെയാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ഒരുപാട് ഭാഷകള് നമ്മുടെ ഇന്ത്യയിൽ ഉണ്ട് ഒരുപാട് ഭാഷയും ഭാഷയും വേഷവും ഒക്കെ ധരിക്കുന്ന ആൾക്കാര് ജീവിക്കുന്ന സ്ഥലമാണ് ഇന്ത്യ പക്ഷെ എന്നാലും ഈ ഒര് കേരളത്തിൽ നമ്മുടെ മലയാളത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം തന്നെ ഇപ്പോഴും എന്നും നമ്മള് കൊടുക്കുന്നുണ്ട്